ജനിച്ച കുട്ടികളെ പരിപാലിക്കുക എന്നുള്ളത് മെയിനായിട്ട് ആ കുട്ടികളുടെ അമ്മയിൽക്കൂടിത്തന്നെ ആദ്യത്തെ ഒരു വർഷക്കാലത്തെ അവരുടെ പരിപാലനം സാധ്യമാകും അങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക് അമ്മയുടെ പാൽ തന്നെ കൊടുക്കണം ആ ഒരു വർഷം അവർക്ക് മറ്റുള്ള ആഹാരങ്ങളൊന്നും പറ്റില്ല അവർക്ക് പ്രത്യേകം കുട്ടികൾക്കുള്ള ആഹാരങ്ങൾ കണ്ടെത്തി കൊടുക്കണം അതിപ്പോൾ വിപണിയിൽ മേടിക്കാൻ കിട്ടുന്നതോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് ആർജ്ജിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതുമായ ഭക്ഷണമാണ് അവർക്ക് കൊടുക്കുക എന്തായാലും അതുപോലെത്തന്നെ അവർ താരാട്ടുപാടി ഉറക്കുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഉറക്കം ഉറങ്ങാൻ വരെ ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലുള്ള കുട്ടികൾ കരച്ചിലും ഒക്കെയുണ്ടാവും അതിനെയൊക്കെ സാന്ത്വനപ്പെടുത്തി തട്ടി ചെറുതായി മൂളിച്ച ഒക്കെയായിട്ട് ഓരോ പാട്ടുകളുടെ ശകലങ്ങൾ ഇട്ടു കൊടുത്ത് കുട്ടികളെ അങ്ങനെ പരിപാലിക്കുക അവരുടെ ഭക്ഷണം പൂർണ്ണമായിട്ടും പണ്ടൊക്കെയാണെങ്കിൽ കായ ഉണക്കിപ്പൊടിച്ചത് അതുപോലെയുള്ള ഉപ്പില്ലാത്ത ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ സെർലാക്ക് പോലുള്ള വസ്തുക്കൾ

കുട്ടികൾക്ക് കൊടുക്കേണ്ടത് മുഴുവൻ അങ്ങനെയാണ് ഒന്നും പുതിയതായിട്ടുള്ളതല്ല ഒക്കെ പഴയതൊക്കെയായിട്ടുള്ളതാണ് കൊടുക്കണത് അതുതന്നെയാണ് അതിൻ്റെ ശരി